ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ തൈയ്യലെന്നു പറയുന്നൊരു പിരീഡ് ഉണ്ടായിരുന്നു അന്നെന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ടൗവലിൻ്റെ അത്രയും ഉള്ളൊരു വെള്ള തുണിയിൽ നമ്മളെ തുന്നൽ പഠിപ്പിച്ചിരുന്നു ഈ പൂക്കളും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ബോർഡർ തയ്ക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചിരുന്നു അതു കഴിഞ്ഞിട്ട് തയ്യലിൻ്റെ പാവട്ട് തയ്യൽ പഠിച്ചിരുന്നു അപ്പം തൈയ്യൽ പഠിക്കാൻ തന്നെ ഉണ്ടായ കാര്യമെന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളിപ്പം ഒരു തുണി തുന്നാൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കുറയാതെ എങ്ങനെ നോക്കിയാലും ഒരു മുന്നൂറ്റൻപത് രൂപയാകും നമ്മൾ തയ്യൽക്കൂലി കൊടുക്കുക അപ്പം സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കു തന്നെ തുന്നാം എന്നുള്ളൊരു ധാരണയിൽ തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ എന്താ സ്റ്റിച്ചിങ്ങും അതു പോലെ കട്ടിങ്ങും അതിൻ്റെ അളവുകളും ഇന്ന ഇന്ന ഇന്ന രീതിക്കാണ് അത് വെട്ടേണ്ടതെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്നിപ്പം സ്ത്രീ പുരുഷനങ്ങനെ വ്യത്യ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം സ്ത്രീ ചെയ്യുന്ന ജോലി പുരുഷനും ചെയ്യാം പുരുഷൻ ചെയ്യുന്ന ജോലി സ്ത്രീക്കും ചെയ്യാം എല്ലാവരും ഇപ്പം ഈക്വലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതു കൊണ്ട് തുന്നൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു സ്വയം തൊഴിൽ നമുക്ക് ഇപ്പം ചെയ്യണമെങ്കിൽ തന്നെ തൈയ്യൽ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ് ഇപ്പം ചെറുതായിട്ടൊരു ഒരു മെഷീനും വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കടയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ശക്തി വഴി പൈസയൊക്കെ എടുത്തൊരു യൂണിറ്റായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വയം തൊഴിലാകും അതുമല്ല പൈസ സമ്പാദിക്കാൻ പറ്റും അപ്പം മെയിനായിട്ട് നമുക്ക് നമ്മുടെ തുണികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഡ്രസ്സുകളെല്ലാം നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും വെളിയിൽ കൊടുക്കാണ്ട് ഇപ്പം ഇപ്പം ഒരു കുടുംബത്തിൻ്റെ തുണി തയ്ക്കാൻ കൊടുത്താൽ തന്നെ എത്ര രൂപയാകും അപ്പം ആ ഒരു പൈസ നമുക്ക് ലാഭിക്കാമല്ലോ നമ്മൾ സ്വന്തമായിട്ട് തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം ഇതെല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് തയ്യൽ അതിൻ്റെ എംബ്രോയിഡറി വർക്കായാലും ഇന്നിപ്പം ഒരുപാട് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് പൈസ നമുക്ക് കിട്ടും അപ്പം അതൊക്കെ പഠിക്കുന്നത് നല്ല കാര്യമാണ് അതിൽ ആരും പിന്നോട്ട് നിൽക്കരുത് എല്ലാവരും മുന്നോട്ടു തന്നെ വരണം നമുക്കറിയാവുന്ന അറിയാതെ ഉള്ളവർക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ എന്തെല്ലാം തരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഈ തയ്യൽ പഠിക്കാനായാലും പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിലും ഏതെല്ലാം തരത്തിലത്തേക്കും നമുക്ക് തയ്യലിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നറിയുന്നു പ്രത്യേകിച്ചും ഇത് ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റെടുത്തു ചെയ്യുക മറ്റുള്ള നമ്മൾ ചെയ്ത അതു മറ്റുള്ള മറ്റൊരു മറ്റൊരാളിലേക്കും അതു പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവരിൽ അവരും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി അവർക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കി കൊടുക്കുകയാണെങ്കിലും അതു വളരെ വലിയ കാര്യമാണ് പിന്നെ ഈ തൊഴിലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തയ്യൽ മഷീൻ തന്നെ വേണമെന്നില്ല സൂചി നൂല് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുണി തയ്ച്ച് അത് പല രീതിയിലും തയ്ച്ചെടുക്കാൻ പറ്റും അതിന് നമുക്കെപ്പോഴൊരു മനസ്സ് ഉണ്ടായിരിക്കണം ഇന്നത് നമ്മൾ ചെയ്താലത് രീതിയിൽ വളരെ നല്ല രീതിയിൽ നമ്മളത് ചെയ്തെടുക്കണം എന്നൊരു ഇത് നമുക്കുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം തയ്യൽ നല്ലൊരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ സ്വന്തം വസ്ത്രങ്ങൾ നമുക്ക് തയ്ച്ചെടുക്കാനും നമുക്ക് സാധിക്കും